നൃത്തത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അത് അവരുടെ കഴിവ് പോലെയാണ് ഇരിക്കുന്നത് നൃത്തം ഏത് രീതിയിലും വേണമെങ്കിലും കളിക്കുന്നത് അത് അങ്ങനെയല്ല അത് അതിൻ്റേതായ രീതിയിലാണ് നൃത്തത്തെ നമുക്ക് ചുവട് വയ്ക്കാൻ സാധിക്കുന്നത് വളരെ മനോഹരമായിട്ട് വേണം അതുപോലെ തന്നെ നൃത്തത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും നൃത്തത്തിന് വേണ്ടി എടുക്കുന്ന അതിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നതും ചായം പൂശുന്നതും എല്ലാം തന്നെ നൃത്തത്തിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതിൽ ഒന്നാണ് ഓരോ നൃത്തത്തിലും അതിൻ്റേതായ അതിൻ്റേതായ കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം നൃത്തത്തെ എപ്പോഴും ഒരു ദൈവികമായിട്ട് വേണം നമ്മൾ കാണാൻ കാണേണ്ടത് ഏതൊരു നൃത്തവും നമുക്ക് നമുക്ക് എപ്പോഴും ഒരു ഒരു ആരോഗ്യപരമായിട്ടുള്ള രീതിയിലും ഉള്ളവർക്കാണ് നമുക്ക് നൃത്തത്തെ കാണാൻ പറ്റുന്നത് ഓരോ നൃത്ത ചുവടുകൾക്കും നമുക്ക് കൺകുളിർ നേരുന്ന കാര്യങ്ങളാണ് ഹൃദയത്തിൽ കൊള്ളുന്നതും ആയിട്ടുള്ള ഒരു കാര്യമാണ് നൃത്തം എന്നത് എല്ലാ നൃത്തത്തിനും അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് നൃത്തം എന്നത് ഏറ്റവും വലിയ ഒരു മഹാസാഗരം തന്നെയാണ് ഒരുപാട് നൃത്ത കലാ രൂപങ്ങളും ഉള്ളവർക്കും ഉണ്ട് പല രീതികളിൽ നൃത്തരൂപങ്ങളാണ് ഉള്ളത് നൃത്തത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ കാര്യം അത് നൃത്തം ചെയ്യുന്ന ആൾക്കാരുടെ നന്മയും മനസ്സും ഏറ്റെടുത്തു കൊണ്ടുവേണം നമ്മൾ നൃത്തം ചെയ്യാൻ നല്ല രീതിയിൽ ആരോഗ്യപരമായിട്ടും നല്ല രീതിയിലുള്ള മാനസികമായിട്ടും വേണം നമ്മൾ നൃത്തത്തെ ഏറ്റെടുക്കേണ്ടത് ഓരോരുത്തരും അതിൻ്റേതായ രീതിയിൽ നൃത്തങ്ങൾ ചെയ്യുമ്പം നമുക്ക് ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെടുന്നത് അവരുടെ വസ്ത്രധാരണ അവരുടെ വസ്ത്രധാരണ അതുപോലെ തന്നെ അവരുടെ ആഭരണങ്ങൾ അവരുടെ അവർ അവർ ഒരുങ്ങിയിരിക്കുതു പോലെ ഓരോരുത്തരും ഒരുങ്ങിയിരിക്കുന്ന പോലെയൊക്കെ അവർ അവർ ഏറ്റെടുത്തിരിക്കുന്ന ഗാനങ്ങൾ ഗാനത്തെ സംബന്ധിച്ചും ഏറ്റവും കൂടുതലും നൃത്തത്തെ നമ്മൾ സ്വാധീനിക്കുന്നതാണ് അതുപോലെ തന്നെ നൃത്തം ഏറ്റവും കൂടുതലും നമുക്ക് ഇഷ്ടപ്പെടുന്നത് നൃത്തത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന പാട്ടുളൊക്കെ ആണ് നൃത്തം നമ്മളെ ഏറ്റവും കൂടുതലും തന്നെ സ്വാധീനിക്കുന്നത് ഒന്നാണ് എല്ലാ തരത്തിലുള്ള നൃത്തങ്ങളും നമ്മളെ സ്വാധീനിക്കും ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്